ഹലോ ആരാണ് ഓ ആദിശിൻ്റെ അമ്മയാ ആ എന്താപ്പാ വിളിച്ചത് അതെ ക്ലാസ് ടീച്ചറ് അതെ നിങ്ങൾ നമ്മൾ നമ്മൾ ഇവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഹോം വർക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കുറച്ച് കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ അവിടുന്ന് ക്ലാസ് എടുക്കുന്നില്ലേ അതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ ഇപ്പോൾ ബാക്കി ബാക്കി കാര്യം ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാര്യം അല്ലേ നിങ്ങൾ ഇവിടുന്ന് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട് തോന്നുന്നു പരീക്ഷക്ക് മാർക്ക് കുറവ് കുറേ കുറവ് അല്ലേ മാർക്ക് കുറവാ അത് പക്ഷെ നിങ്ങൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ അവർ അവർ കുട്ടികളല്ലേ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ആയിരിക്കും എന്നാലും പഠിപ്പിക്കണ്ടേ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ പഠിക്ക് അതെ അതെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം പഠിപ്പിക്കേണ്ടത് നിങ്ങളല്ലേ കുറച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ എത്തിയാൽ ഹോം വർക്ക് എല്ലാം കാര്യം ആയി ഇരുന്ന് ചെയ്യുന്നുണ്ടോ നോക്കണം അതെ ബാക്കി ബാക്കി ഡീറ്റെയിൽസ് ബാക്കി ഡീറ്റെയിൽസിൻ്റെ അവരെ മിന്നന്ന് നമ്മളെ വിളിക്കുക ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല അറിയുമ്പോൾ നമ്മൾ വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കുക അപ്പോൾ കുറച്ച് പഠിക്കുന്നുണ്ടോ നോക്കാമല്ലോ ആ സമയത്ത് വിളിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കണം അപ്പോൾ വിളിക്കും അവിടെ സംഭവം ഒന്ന് എല്ലാം അറിഞ്ഞ് ചെയ്യിച്ചാൽ അപ്പോൾ പഠിക്കാൻ ഉള്ളത് കിട്ടുമല്ലോ പിന്നെ കുട്ടികൾക്ക് പറഞ്ഞാൽ കുറച്ച് കുറച്ച് കളിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പറഞ്ഞ് കൊടുക്കേണ്ടി വരും നമ്മൾ തന്നെ നിന്നിട്ട് പറഞ്ഞ് കൊടുത്താലേ കിട്ടൂ അത് അല്ല അവരിപ്പോൾ കളിക്കാനും പിടിക്കാനും പായുന്നുണ്ടെങ്കിൽ ചെറിയ ചെറുങ്ങനെ ഒരു ട്രാക്കെന്ന് ഉള്ള രീതിയിൽ നമ്മൾ ഹോം വർക്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് നിങ്ങൾ കൊടുക്കണം എല്ലാ കുട്ടികൾക്കും ആ കുറവുണ്ട് അതു പഠിക്കേണ്ട അവസ്ഥ ആക്കേണ്ടി വരും വേറെ എന്ത്യേപ്പാ വേറെ എന്ത്യേ ഉസ്കൂളിൽ എല്ലാം നേരെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് ഉസ്കൂളിൽ എല്ലാം നേരെ വരുന്നുണ്ട് അതല്ലേ നമുക്ക് അറിയുന്നുള്ളൂ ആ അതുതന്നെ ബെസ്റ്റ് അപ്പോൾ ഉസ്ക്കൂള് വന്നാൽ കാര്യം ഇല്ലല്ലോ പഠിക്കാത്ത കുറവല്ലേ ഉള്ളൂ ഇപ്പോൾ ആ ആ അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്ക് നമ്മളിപ്പോൾ ഞാൻ പറയാം നോക്കട്ടെ വരുന്ന കുറച്ച് പറഞ്ഞ് നോക്കാം ആയിക്കോട്ടെ ഓക്കെ